ഇപ്പൊൾ യുവാക്കൾ അധികവും ഇഷ്ടപ്പെടുന്ന ജോലി എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബ് ആണ് ഓഫീസ് ബാങ്കുകള് ഗവൺമെൻറ് ജോലികള് ഈ സാധാ ഡെയിലിയുള്ള ജോലികൾ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല വൈറ്റ് കോളർ ജോബുകള് ല ലഭിക്കാനാണ് അവർക്കെല്ലാവർക്കും താല്പര്യം അവര് ഇപ്പോൾ കുറെ രാജ്യങ്ങളിലേക്ക് അധികവും ഓസ്ട്രേലിയ അയർലൻഡ് ലണ്ടൻ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇപ്പൊൾ പഠിക്കാനും ജോലി സംബന്ധമായിട്ടും പോകുന്നത് ആൾക്കാര് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയല്ല പക്ഷേ അവർക്ക് പഠിപ്പിന് അനുസരിച്ചുള്ള ഒരു തൊഴില് ലഭിക്കുന്നില്ല ഇവിടെ അതുകൊണ്ട് പുറം രാജ്യങ്ങളിൽ പോയി തൊഴിൽ നേടാനാണ് അവർ കൂടുതലും ആഗ്രഹിക്കുന്നത് കൃഷിപ്പണിയിലേക്ക് അധികം യുവാക്കൾ ഇറങ്ങുന്നില്ല അവർക്ക് വൈറ്റ് കോളർ ജോബുകളാണ് കൂടുതൽ ഇഷ്ടം